ഹലോ അതെലോ പറഞ്ഞോളൂ അത് കേക്ക്കൾ കേക്ക്കൾ കേക്ക്കളുണ്ട് അല്ലാത്ത പഫ്സുണ്ട് സമൂസ അങ്ങനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇവിടെ സാധനങ്ങളുണ്ട് അത്യാവശ്യം പത്ത് പേർക്കുള്ളത് പത്ത് പേർ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആ നിങ്ങൾക്ക് വേറെ വാഷ് റൂമുണ്ട് എല്ലാം എല്ലാ സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കേ ഓക്കേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വ വന്നിട്ട് നമുക്ക് നോക്കാം വന്നിട്ട് പറഞ്ഞാൽ മതി ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ഇവിടെ അവൈലബിളാ സാധനങ്ങളൊക്കെ രാവിലെ മുതൽ രാത്രി ഒൻപത് മണി വരെ ഉണ്ടാവും വരൂലേ ഓക്കെ ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ ആ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് സ്റ്റാഫ് ആ ആ ഓക്കേ ഓക്കേ ഞാൻ മാം സ്വന്തമായിട്ട് മാഡം ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ബേക്ക് ചെയ്ത് സാധനങ്ങളും ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഇവിടെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെ എനിക്ക് സ്റ്റാഫുമുണ്ട് കേക്കുകളുണ്ട് പിന്നെ ആ വടയുണ്ട് പിന്നെ സമൂസയുണ്ട് പഴംപൊരിയുണ്ട് അല്ലാത്ത മാഡത്തിന് എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത് ചെറു കടികളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ സ്റ്റാഫ്

എണ്ണ ഇല്ലാത്ത സാധനങ്ങളുണ്ട് മാഡം ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ട്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാം ഇതിനകത്തുന്ന് എണ്ണയുള്ള അതെ സ്റ്റാഫൊണ്ട് പിന്നെ ഇല്ല ഇല്ല ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ തീ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കേ ഓക്കേ ഓക്കേ വന്നോളൂ ഇവിടെ എല്ലാം ശരിയായി